പൊതുവെ പട്ടണങ്ങളിൽ സിറ്റിസിലൊക്കെ പോകാറുള്ളത് വീട്ടില് എന്തെങ്കിലും ആവശ്യങ്ങള്ക്കും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങള്ക്കും വേണ്ടി മാത്രമായിരിക്കും പോകുന്നത് പ്രത്യേകിച്ച് ഡ്രസ്സ് എടുക്കാൻ അതുപോലെ തന്നെ സാധാനങ്ങള് മേടിക്കാൻ പച്ചക്കറികൾ പാത്രങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രിക്ക് വസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ആയിട്ടാണ് പൊതുവെ സിറ്റിസിലൊക്കെ പോകാറുള്ളത് പിന്നെ എന്തെങ്കിലും ജോ തൊഴി തൊഴില് സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ജോലി വല്ലയിടത്തും വേക്കൻസി ഉണ്ടോ അതൊക്കെ അറിയാനായിട്ട് ചിലപ്പോള് പോകാറുണ്ട് പിന്നെ പൊതുവെ വണ്ടിയിൽ നമ്മുടെ വണ്ടികളിലൊക്കെ പെട്രോള് നമ്മൾ അടിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സിനടുത്തൊക്കെ ചിലപ്പോൾ ഈ ഗ്രാമത്തിലൊക്കെ നമ്മൾ അതായത് നമ്മുടെ തൊട്ട് അടുത്ത ഗ്രാമത്തിലൊക്കെ പോകാറുണ്ട് ഫ്രണ്ട്സിനെ കാണാനായിട്ടും ചിലപ്പോൾ കളിക്കാൻ ഫുട്ബോൾ പോലെയുള്ള കാര്യങ്ങൾ കളിക്കാൻ അതിനൊക്കെയായിട്ടാണ് കൂടുതല് ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് സിറ്റിസിൽ പോകുന്നത് മെയിൻ ആയിട്ടും വീട്ടിലെ ആവശ്യങ്ങൾക്കും പിന്നെ ഷോപ്പിംഗിന് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ അതിനൊക്കെ വേണ്ടിയാണ് സാധാരണയായിട്ട് പോകുന്നത്